ഇപ്പം എന്റെ വീട്ടില് എലക്ട്രിക്കല് ഉപകരണങ്ങള് ഏതൊക്കെയാന്നു വച്ചിട്ടുണ്ടെങ്കില് അതായത് ഈ കറണ്ട് അടുപ്പുണ്ട് മിക്സി ഉണ്ട് ഗ്രൈന്ഡര് ഉണ്ട് ഗ്യാസ് സിലിണ്ടര് ഉണ്ട് ഓവന് ഉണ്ട് എല്ലാം ഉണ്ട് ഏകദേശം ഓവന് ഒക്കെ നമ്മള് ഇപ്പം അടുത്ത് മേടിച്ചേയുള്ളൂ അപ്പോന്ന് വച്ചിട്ടുണ്ടെങ്കില് പണ്ടെന്നു വച്ചിട്ടുണ്ടെങ്കില് ഇതൊന്നും ഇല്ലാത്ത ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു കാരണം എന്ന് വച്ചാൽ പണ്ടത്തെ കാലത്ത് തന്നെ മിക്സീയും ഗ്രൈന്ഡറും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മുടെ വീട്ടില് അമ്മിയായിരുന്നു അമ്മിയും അമ്മികുട്ടീം ആയിരുന്നു അപ്പോൾ അതിലാണ് അരിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മള് പിറ്റേദിവസം ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് അതിലാണ് അരിയൊക്കെ ഇട്ട് അരയ്ക്കാറ് ഇപ്പം ഗ്യാസ് സിലിണ്ടര് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനു പകരം ഗ്യസ് സിലിണ്ടര് കറണ്ട് അടുപ്പ് അങ്ങനത്തെ കാര്യങ്ങള് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് അടുപ്പിൽ തന്നെ വിറക് കത്തിച്ച് ഊതി ആണ് ചോറ് കറി എല്ലാ കാര്യങ്ങളും കുടിക്കാന് വെള്ളം കുളിക്കാന് വെള്ളം എന്ന് പറയുന്ന പറഞ്ഞപോലെ എല്ലാ സാധനങ്ങളും നമ്മള് അങ്ങനെയാണ് വെക്കാറ് പിന്നെ എന്ന് വച്ച് കഴിഞ്ഞാൽ ഓവന് ഇപ്പം എന്ന് ഒക്കെയാണ് കേക്ക് കാര്യങ്ങളൊക്കെ നമ്മള് വീട്ടിലൊക്കെ എല്ലാവരും ഓണ്ലൈന് ഒക്കെ നോക്കി ഉണ്ടാക്കുന്നത് കാരണം അന്നത്തെ കാലത്ത് എന്നൊക്കെ വച്ച് കഴിഞ്ഞാല് നമ്മള് കടയിലൊക്കെ കേക്ക് കിട്ടുവാണേൽ മേടിക്കും എന്നല്ലാണ്ട് നമ്മള് അല്ലാണ്ടൊന്നും കേക്ക് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പമെന്ന് വച്ചിട്ടുണ്ടെങ്കില് അന്നത്തതിനേക്കാളും ഈ സാധനങ്ങള് ഒക്കെ വന്നപ്പോൾ പണി കുറച്ച് എളുപ്പമായി